ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ നമ്മളെ വളരെ അയധികം സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെലിവിഷൻ ഈ ടെലിവിഷന് മൊബൈല് ഈ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ഒരു എൻ്റർടെയ്ൻമെൻ്റ് ആണ് പിന്നെ വാർത്തകളൊക്കെ അറിയണം നമുക്ക് ഓരോ സഹായിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യ പറഞ്ഞാൽ നമ്മൾ വളരെ അധികം സഹായിക്കുന്നുണ്ട് അതു കൊണ്ടാണ് ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് മൊബൈല് വച്ച് നോക്കാണെ മൊബൈലൊന്നും ഇല്ലാതെ നമുക്ക് ഇനി ഇപ്പം ഇനി അങ്ങോട്ടുള്ള കാലത്ത് തീരെയും ജീവിക്കാൻ കഴിയില്ല അപ്പോൾ നോക്കണെ എന്തുകൊണ്ടും വളരെ മികച്ച ഒരു ഇതാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മൾക്ക് ഒന്ന് ആലോജിച്ച് നോക്കിയെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക പിന്നെ ടിവി എന്ന് മൊബൈലുകൾ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ടിവി എന്ന് വളരെ ഒരാശ്രയം തന്നെയാണ് അതിൽ ഓരോ കാര്യങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ വാർത്തകൾ എന്തൊക്കെ പ്രധാന തലകെട്ടുകൾ ഒക്കെ നമുക്ക് അതിൽ കാണാം പിന്നെ ഇപ്പം തന്നെ എൻ്റർടെയിൻമെൻ്റായ സീരിയല്കൾ സിനിമകൾ ഒക്കെ അതിൽ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു നേരമ്പോക്ക് തന്നെയാണ് നമുക്ക് അത് വേണമെങ്കിൽ അതിൽ നിന്ന് കാണാം എപ്പോഴും സ്ട്രെസ് ആയിരിക്കണ സമയത്ത് ടിവി ഒക്കെ വച്ച് നോക്കുമ്പോൾ അതിൽ കുറെ പാട്ടുകളൊക്കെ കണ്ട് അതൊക്കെ കേട്ട് നമ്മൾ മനസിന് തന്നെ ഒരു സുഖമാണ് ഇത് നമ്മളെ നല്ല വളരെ അധികം സഹായിക്കും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സഹായിക്കുന്നുണ്ട് നമ്മളെ